ഞങ്ങൾക്ക് തില ചില ദിവസങ്ങളിലും വൈദ്യുതി മുടക്കാറുണ്ട് കൂടുതൽ ദിവസങ്ങളിലും വലിയ വൈദ്യുതിക്ക് പ്രശ്നമില്ല എന്നാലും ഇപ്പോൾ ഈ കാലാവസ്ഥ അനുസരിച്ച് കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കിനും വൈദ്യുതിയൊക്കെ വരികയും പോകുകയും ഒക്കെ ചെയ്യും വ്യത്യസ്ഥ കാലാവസ്ഥ മ ഉള്ളതു കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ പിന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കറണ്ടു കട്ടൊക്കെ ഇപ്പോൾ കൃത്യമായിട്ടില്ലാ അതൊക്കെയുള്ള സമയത്തിൻ്റെ സമയത്തു തന്നെ കറണ്ടു പോകുമായിരുന്നു ഇപ്പോൾ അതു ബാധിക്കുന്നു അതു ബാധിക്കുന്നില്ല എങ്കിലും പിന്നെ കാലാവസ്ഥ ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ മതി ചെറിയ മഴ പെയ്താൽ മതി ഉടൻ തന്നെ ഇലെക്ട്രിസിറ്റി ബോഡുക്കാർക്ക് ജോലിയാണ് അവർ പിന്നെ രണ്ടും മൂന്നും ദിവസത്തേക്ക് മഴ ക കറണ്ടു കാണത്തില്ല അങ്ങനെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ലൈൻ കമ്പി റോഡിൽ പൊട്ടി ഒക്കെ വീഴുന്നതു കൊണ്ടും ഒക്കെ നമുക്ക് കറണ്ടു കിട്ടുന്നില്ല അതൊക്കെ ഒത്തിരി അപകടങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ കുറേ നാളും കൊണ്ട് ക മ വൈദ്യുതി ഒക്കെ ലഭിക്കുന്നുണ്ട് വൈദ്യുതി അധികം ധാരാളം പോകുന്നില്ല പക്ഷെ നമുക്ക് വൈദ്യുതി കൊ വൈദ്യുതി അത്യാവശ്യമാണ് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല ജീവിതത്തെ നമ്മുടെ വർഷ കാലാവസ്ഥയൊക്കെ നമുക്കതിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് ഇപ്പോഴത്തെ കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വൈദ്യുതി ക തടസ്സം നേരിടുന്നു ദാ അങ്ങനെ തടസ്സം നേരിട്ടാൽ നമ്മുടെ ബില്ലാക്കിയിട്ട് ബോഡുകാർ അതിൻ്റെ വേണ്ട രീതിയിൽ ചെയ്യും എങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ടു കാര്യമില്ല കാലാവസ്ഥയുടെ കാര്യങ്ങളല്ലേ അതു നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് എങ്കിൽ വൈദ്യുതിയുണ്ട് നമുക്കൊത്തിരി ഉപയോഗങ്ങളുണ്ട് വൈദ്യുതി നമുക്ക് മുടക്കം വരുന്നുണ്ട് മുടക്കത്തിന് ഇതു കാരണമാണ് അതുപോലെ അതു വൃത്തിയായിട്ടു ചെയ്യാൻ സാധിക്കുന്നു ഇത്രയും ഇത്രയും മണിക്കൂറൊക്കെ തടസ്സം നേരിടാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തെ അതു ബാധിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴെല്ലാം എല്ലാവരും കൊച്ചു എല്ലാം എല്ലാ അതിനെകാരമായതുകൊണ്ട് വൈദ്യുതിയെ പ്രത്യേകമാട്ടാസ്രയിച്ച് ആശ്രയിച്ചാണിരിക്കുന്നത് അതു നമുക്ക് വേണ്ടരീതിയിൽ അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കും മനസ്സിലായിച്ചേ മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമാക്കാൻ വേണ്ടി നമ്മുടെ ഭൂപ്രകൃതിയെ നിയന്ത്രിക്കുക